ഇപ്പോൾ വായിക്കുന്ന പുസ്തകങ്ങൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ കഥകളും കവിതകളും ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആ രണ്ട് പുസ്തകങ്ങളാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ കഥകളും കവിതകളും ഒക്കെ കുറച്ച് ഏറെ വായിക്കുകയും അതിലൂടെ ചിരിക്കാനും ചിന്തിപ്പിക്കുവാനും സാധിക്കുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളും കഥകളും ഒക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുവാനും സഹായിക്കുന്നവയാണ് ഇതുപോലെ അതിനേക്കാളേറേ ചിന്തിപ്പിക്കുവാനും സഹായിക്കുന്ന പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റേത് അതുപോലെ തന്നെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ നമ്മുടെ ഗാന്ധിജിയുടെ ഈ പുസ്തകത്തിലൂടെ ധാരാളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ധാരാളം കാര്യങ്ങൾ ഒരു ആത്മകഥ അദ്ദേഹം കുറിച്ച് വച്ചിട്ടുള്ളതാണ് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അനുഭവങ്ങളൊക്കെ ആ പുസ്തകത്തിലൂടെ അദ്ദേഹം നമ്മൾക്ക് നേർരേഖയിൽ തന്നെ കാട്ടിത്തരുന്നവയാണ് അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യ കാലം മുതലുള്ള കാര്യങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കടുത്ത അദ്ദേഹത്തിൻ്റെ മരണം മരണത്തിന് മുമ്പ് തൊട്ടു മുമ്പുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം അതിനകത്ത് വളരെയധികം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ചിന്തിക്കുവാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അതുപോലെ പ്രവൃത്തിക്കുവാനും ഒക്കെ നമുക്ക് പ്രചോദനം തന്ന ഒരു പുസ്തകം തന്നെയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ ആ അതിലൂടെ നമുക്ക് രാജ്യ സ്നേഹം വളർത്തുവാനും മാതൃ രാജ്യത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊക്കെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഗാന്ധിജി ഗാന്ധിജി അനുഭവിച്ച യാതനകളും ദുരിതങ്ങളും ജെയിൽവാസങ്ങളും ഒക്കെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എത്രത്തോളം പോരാടി എന്നതൊക്കെ അതിനകത്തുണ്ട് ആ ഒരു പുസ്തകത്തിലുണ്ട് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ആത്മകഥ എന്നത് എന്നതിൽ ഉപരി അദ്ദേഹത്തിൻ്റെ പോരാട്ടം കൊണ്ടാണ് കഥകൾ കൂടിയാണ് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ സത്യ സത്യസന്ധതയെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം ഭാഗങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരിക്കൽ അദ്ദേഹം കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇംഗ്ലീഷ്കാരൻ ഒരു അധ്യാപകൻ അവിടെ ക്ലാസ്സിൽ വരികയും കെറ്റിലെൽ എന്നൊരു ഇംഗ്ലീഷ് വാക്ക് എഴുതാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്തു എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയൊക്കെ എഴുതി എങ്കിലും ഗാന്ധിജിയെ കാണിച്ചു കൊടുത്തിട്ടു പോലും അദ്ദേഹം ആ വാക്ക് എഴുതാൻ തയ്യാറായില്ല തനിക്കറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് മറ്റുള്ളവരുടെ ഇത് നോക്കി എഴുതുവാനുള്ള ആ ഒരു മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ എല്ലാവരും പുകഴ്ത്തുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് സത്യസന്ധനായ ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ നല്ല ഒരു സഹജീവി എന്ന നിലയിൽ സഹജീവികളോട് അദ്ദേഹത്തിന് വളരെ അധികം കരുണയോടും സ്നേഹത്തോടും കൂടി പെരുമാറുകയും ചെയ്തു ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധാരാളം പടപൊരുതുകയും ധാരാളം ക്രൂരതകൾ അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ മഹാത്മാ ഗാന്ധി അദ്ദേഹത്തെ രാഷ്ട്ര പിതാവെന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് അദ്ദേഹം അതിന് എറ്റവും അനുയോജ്യൻ തന്നെയാണ് രാഷ്ട്ര പിതാവെന്ന രീതിയിൽ അദ്ദേഹം ഏറ്റവും അനുയോജ്യൻ തന്നെയാണ് ആ പുസ്തകത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഏറ്റവും കൃത്യമായ രീതിയിൽ തന്നെയാണ് പറയുന്നത് നമുക്ക് അറിയാൻ സാധിക്കും പുസ്തകത്തിൻ്റെ ഓരോ പേജുകൾ വായിക്കുമ്പോഴും ഗാന്ധിജി എത്രത്തോളം നമ്മുടെ മനസ്സിനെ മനസ്സിനെ സ്വാധീനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ മൂല്യങ്ങൾ എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അഹിംസയിലൂടെ കടന്നുപോയ ഒരു വ്രത വ്രത അഹിംസ ഒരു വ്രതം പോലെ കൊണ്ടു നടന്ന ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വളരെ അധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്